പന്ത്രണ്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്